ബാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു സംസാരവിഷയം ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അദ്ധ്വാനിച്ച് ഉണ്ടാക്കിയിട്ടുള്ള നമ്മളുടെ പൈസ നമ്മൾ കൊണ്ട് നിക്ഷേപിക്കുകയാണ് അപ്പോൾ നമുക്കത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗൂഗിൾ പേയും പോലെ നമ്മൾ ഇങ്ങനെ ഇന്റർനെറ്റ് ബാങ്കിങ് വളരെയധികം കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള വളരെ എളുപ്പമാണ് കടയിൽ പോകാ കാണിക്കുക വാങ്ങിയ വര ഒരു പൈസയുടെ ഇടപാടൊന്നും വരുന്നില്ല നേരിട്ടൊരു ഇടപാടുമില്ല ചെയ്യുക പോകാ വര വളരെ എളുപ്പം വളരെ സുഖം വളരെ എ എള് എളുപ്പമായി ചെയ്യാവുന്ന ഒന്ന് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഇപ്പോൾ വളരെയധികം ഇത്തരത്തിൽ തന്നെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നമ്മളുടെ പൈസ പോകുന്നു തിരിച്ച് കിട്ടുന്നില്ല നമ്മൾ നമ്പറൊന്നു തെറ്റിയയച്ചാൽ പിന്നെ അവരോട് പറയുമ്പോൾ അവർ തിരിച്ച് അയക്കുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ ആളുകൾ കോഡ് മാറ്റിവെക്കുക അപ്പോൾ കടയിലുള്ള ആൾക്ക് കിട്ടുന്നതിന് പകരം വേറെ ആർക്കോ ആണ് പൈസ കിട്ടുന്നത് അങ്ങനെ പല പ്രശ്നങ്ങളും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് കൊണ്ടും മുഖാ മുഖമുള്ള ബാങ്കിങ്ങാണ് ഞാൻ കൂടുതൽ ലൈക് എളുപ്പം നോക്കുകയാണെങ്കിൽ ശരിയാണ് നമുക്ക് ഇന്റർനെറ്റിൽ വീട്ടിലിരുന്ന് നമ്മളുടെ സൗകര്യത്തിന് ചെയ്യാവുന്നതേ ഉള്ളു പക്ഷെ നമ്മളെ മുഖാ മുഖം ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും കാര്യം പറയും നമ്മുടെ കൈയിലുള്ള പൈസ നമ്മൾ നിക്ഷേപിക്കും അവരത് നമ്മുടെ അക്കൗണ്ടിൽ ഇടും ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമ്മൾ പിരിച്ചെടുത്ത് നമ്മൾ എടുക്കും അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഒരു കാര്യമാണ് അതു കൊണ്ട് തന്നെ അത് അത്രയും എളുപ്പത്തിൽ നമുക്ക് മെയ്ൻറ്റെയ്ൻ ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്റർനെറ്റ് ബാങ്കിങ് ആണോ അതോ സാധാരണ മുഖാ മുഖമുള്ള ബാങ്കിങ്ങാണോ നമ്മൾക്ക് താത്പര്യം എന്ന് നമ്മൾ തന്നെ തിരുമാനിക്കുക കാരണം മുഖാ മുഖമുള്ള ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്കത് ഒരുപക്ഷെ വളരെ എളുപ്പമായി നടന്നേക്കാം വളരെ എന്നൊന്നും ഇല്ല പക്ഷെ ഇന്റർനെറ്റ് ആയിരിക്കും എന്ത്കൊണ്ടും എളുപ്പവും സൗകര്യവും ഉള്ളത് എന്നാൽ പ്രതീകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് തരത്തിലുള്ള ബാങ്കിൽ സ്വീകരിക്കുകയാണെങ്കിലും അത് പൂർണ്ണമായും അത് സെയിഫാണോ അത് നൂറ് ശതമാനം നമ്മൾ നമ്മുടെ പൈസ നമുക്ക് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുനൂറ് ശതമാനം വരെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തൊണ്ണൂറ്റൊൻപത് ശതമാനം വരെയും നമുക്ക് മുന്നോട്ട് കൊണ്ട് പോകാവുന്നതാണ് ഉള്ളത്